പാത്രങ്ങൾ കഴുകുന്ന വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ ആദ്യം ഞങ്ങൾ തറവാട്ടിലായിരുന്ന കാലത്ത് കാലത്തൊക്കെ പാത്രങ്ങൾ എണ്ണമയമുള്ള പാത്രങ്ങളായാലും ഏത് പാത്രങ്ങളായാലും പണ്ട് കഴുകി കഴുകിയിരുന്നത് പാളകത്തിൻ്റെ ഇല ഉപയോഗിച്ചായിരുന്നു അന്ന് പാളകത്തിന്റെ ഇലയായിരുന്നു എല്ലാ കാര്യങ്ങളും കഴുകാൻ നമ്മൾ എന്ത് കഴുകുക ആണെന്നുണ്ടെങ്കിലും പാളകത്തിൻ്റെ ഇല ഉപയോഗിച്ചായിരുന്നു ആദ്യം കഴുകിയിരുന്നത് ഇതിന് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഡിറ്റർജൻ്റ് സോപ്പുകളുടെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കാലഘട്ടം വരുന്നത് ഡിറ്റർജൻറ് അത് ലിക്വിഡ ആയിട്ട് പിന്നെ നമുക്ക് അറിയാം വിമ്മ് ലിക്വിഡ് അല്ലാന്ന് ഉണ്ടെങ്കിൽ വേറെ കുറേ ലിക്വിഡ് ആയിട്ട് ഇപ്പോൾ വേറെ കുറേ ലിക്വിഡ് ഉണ്ട് പിന്നതു പോലെ വിമ്മ് കട്ടകളായിട്ട് വിമ്മ് സോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ റൗണ്ട് ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ കുറേ കഴുകുന്ന കുറേ ഡിറ്റർജൻറ് സോപ്പുകൾ വരവായത് കൂടെ പിന്നെ നമ്മൾ ഇപ്പം ഈ കാലത്ത് എല്ലായിടത്തും എല്ലാ വീടുകളും മിക്ക വീടുകളിലും ഈ ഡിറ്റർജൻറ് നമ്മൾ ഡി ഡിറ്റർജൻറ് മീൻസ് നമ്മൾ ഡിഷ് സോപ്പ് ഡിഷ് വാഷ് സോപ്പുകളാണ് ഇപ്പം ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലവിലെ എല്ലാ വീടുകളും ഏകദേശം ഉപയോഗിക്കുന്നത് ഈസി വാഷ് കട്ടയാണ് ഈസി വാഷ് കട്ട എന്ന് വെച്ചാൽ പത്ത് രൂപയുടെ ഒരു ഇസി വഷ് കട്ട നമ്മൾ സൂപ്പർ മാർക്കറ്റ് കടകളൊക്കെ വാങ്ങാൻ കിട്ടും അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഒക്കെയുള്ള ഒരു വാഷ് കട്ടയുണ്ട് ഡിഷ് വാഷ് കട്ടയാണ് എത് നമ്മളുടെ ഈസി കട്ട എന്നുള്ളത് ഈ ഡിറ്റർജൻ്റ് സോപ്പുകൾ ശേഷമാണ് എല്ലാവരും എന്ത് ഈ ഡിഷ് വാഷ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രം കഴകുന്ന ഇതിലേക്ക് ഓരോ കമ്പനി ഇറക്കാൻ തുടങ്ങുന്നത് ഇപ്പം അത് മാർക്കറ്റിൽ നല്ല ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈസി ഡിഷ് വാഷ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിമ്മു വിമ്മു ഡിഷ് വാഷ് ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വിമ്മ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എപ്പോൾ നിലവിൽ മിക്ക വീടുകളിലും ഇപ്പം നിലവിൽ ഇതാണ് ഉപയോഗിച്ച് വരുന്നത് പണ്ട് കാലങ്ങൾ എൻ്റെ തറവാടുകളിലൊക്കെ പാറവത്തിൻ്റെ ഇല അല്ലാന്നുണ്ടെങ്കിൽ ഈ അതിന് മുമ്പ് പാറവത്തിൻ്റെ ഇലയും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചരലിലൊക്കെയിട്ട് നമ്മൾ എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിരുന്നു മണൽ പോലത്തെ കാര്യം കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതിന് ശേഷമാണ് വെണ്ണീർ വെണ്ണീർ നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം അന്ന് വിറകാണല്ലോ ഗ്യാസ് ഒക്കെ ഗ്യാസും കരടുപ്പൊക്കെ വരുന്നതിന് നമ്മൾ വിറകുണ്ടായിരുന്ന കാലത്ത് വിറക് കത്തിച്ചതിൻ്റെ ചാരം അതായത് വെണ്ണീർ ബാക്കി ഉണ്ടാകും ആ വെണ്ണീർ ഉപയോഗിച്ച് നമ്മൾ പാത്രങ്ങൾ നന്നായി കഴുകിയിരുന്നു അപ്പോൾ ആദ്യ കാലങ്ങളിൽ പാറവുത്തിൻ്റെ ഇല പിന്നെ അതുപോലെ മണലിൽ അല്ലെങ്കിൽ ചരൽ ചരൽക്കല്ല് മെ മെറ്റല അല്ല ചരൽക്കല്ല് പിന്നെ അതുപോലെ വെണ്ണീറ് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇ ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പാത്രങ്ങൾ വൃത്തിയാക്കിയിരുന്നത് അത് തന്നെ എണ്ണമയമുള്ളതായാലും എണ്ണമയം ഇല്ലാന്നുണ്ടെങ്കിലും പണ്ട് കാലങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു ക്ലീൻ ആക്കിയിരുന്നത് ഇപ്പോഴത്തെ കുറച്ച് നമ്മൾ ട്വൻറ്റി ജെനറേഷന് ശേഷം ആൽഫ ജെനറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ വിം ലിക്വിഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് കട്ടകൾ കമ്പനികൾ ഇറക്കുന്ന പ്രൊഫഷണൽ ആയ വെരിഫൈഡ് ആയ അപ്പ്രൂവ്ഡ് ആയ കമ്പനികൾ ഇറക്കുന്ന ഡിഷ് വാഷ് കട്ടകളാണ് ഇപ്പം മിക്ക വീടുകളും ഉപയോഗിച്ചിരുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ ചരൽ അല്ല അത് അല്ലെങ്കിൽ പാറവത്തിൻ്റെ ഇല അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത് ഉപയോഗിച്ചാൽ അതിന്മേലും ചടി കാര്യങ്ങളും ഉണ്ടാകും പിന്നെ അത് നമ്മൾ ആദ്യം കണ്ടെത്തണം പാറവത്തിന്റെ ഇല പോയി കണ്ടെത്തണം പിന്നെ അതുപോലെ വെണ്ണീർ പറഞ്ഞാൽ വിറക് കത്തിക്കുക വെണീർ ഉണ്ടാകുള്ളൂ പക്ഷേ ഇപ്പം ഇത് എന്താണ് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ പോയാൽ നമുക്ക് സിമ്പിൾ ആയിത് വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്